ഞാൻ ആദ്യമായിട്ട് പോയ യാത്ര എന്ന് പറയുന്നത് ഒറീസയിലേക്കാണ് എന്റെ വീട്ടുകാർക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം ഉള്ളൊരു വീട്ടുകാരാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു ഇരുപത് വയസ്സ് ആയില്ലേ അതിനിടയിൽ ഞാൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് യാത്ര ചെയുമ്പോൾ വളരെയൊരു നമുക്ക് വ്യത്യസ്തമായ കുറേ അനുഭവങ്ങളാണ് കുറേ ഭക്ഷണം ഉണ്ടാ രുചിക്കാൻ പറ്റും വ്യത്യസ്തമായ കുറേ ഭക്ഷണം രുചിക്കാൻ പറ്റും കുറേ വ്യത്യസ്തമായ ആൾക്കാരെ കാണാൻ പറ്റും പിന്നെ എന്റെ വീട്ടുകാർക്കും യാത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും യാത്രകളൊക്കെ പോവാൻ പറ്റിയത് പിന്നെ ഞാൻ അഞ്ച് വയസ്സ് ഞാൻ ആദ്യമായിട്ട് പോയത് അഞ്ച് വയസ്സിൽ ഒറീസയിലേക്കാണ് ഒറീസയിലേക്ക് പോയത് എനിക്കത്ര വലിയ ഓർമയൊന്നും ഇല്ല പക്ഷേ ഞങ്ങൾക്ക് എവിടെയൊക്കെയോ കോണാർക്കിലേക്ക് പൊയതും കടലിൽ കളിച്ചതും പിന്നെ ഡോൾഫിനെ കണ്ടതും അതൊക്കെ എനിക്കിങ്ങനെ ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് എന്റെ കൂടെ എന്റെ അനിയനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് പോവുന്നത് രണ്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഹിമാചലിലേക്കായിരുന്നു ഹിമാചലിലേക്കും ഡൽഹിയിലേക്കും കൂടിയിട്ട് കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടു ഇതെനിക്ക് കുറേയൊക്കെ ഓർമ ഉണ്ട് മഞ്ഞിൽ കളിച്ചു ഷിംലയിൽ പോയി മണാലി പോയി അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി രണ്ടു വയസ്സുകാരിക്ക് മഞ്ഞിൽ കളിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വളരെയേറെ ഒരു സന്തോഷം ഉള്ള കാര്യം തന്നെയാണല്ലോ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി പിന്നെ ക്ആ ആവിടുന്ന് കുറേ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിച്ചു പിന്നെ എനിക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു ഈ ചുരങ്ങളൊക്കെ കയറുമ്പോൾ ഞാൻ ഇപ്പോളും ഛർദ്ദിച്ച് ആരുടെയെങ്കിലും മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ചുരങ്ങളൊക്കെ ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പോയത് നാലാം ക്ലാസിൽ പഠിക്കുമ്പോൾ ഗുജറാത്തിൽ ആയിരുന്നു ഗുജറാത്തും വളരെയേറെ ഒരു രസം ഉള്ള സ്ഥലമായിരുന്നു അവിടുന്നാണ് ഞാൻ ആദ്യമായിട്ട് പിസ്സ കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭക്ഷണം നമുക്ക് വ്യത്യസ്തമായ കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര കിട്ടി പിന്നെ ഹൈദരാബാദ് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഞാന് ഏട്ടാം ക്ലാസിൽ പഠിക്കുമ്പോൾ പോയ സിക്കിമിലുള്ള യാത്രയുരുന്നു അതാണെനിക്ക് കുറച്ച് നല്ല രീതി ഓർമ്മയുള്ള സമയം ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു മാർച്ച് ഏപ്രിൽ ആ ടൈമിലായിരുന്നു നല്ല രസം നല്ല തണുത്ത സ്ഥലം നല്ല ഞാൻ ഇന്ത്യയിലല്ല നമ്മൾ സ്വർഗത്തിലാണോ തോന്നും അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്നത്

ഞാൻ വ്യത്യസ്തമായ ആൾക്കാരും അവിടുത്തെ ആൾക്കാരൊക്കെ വളരെയേറെ നല്ല രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് പിന്നെ പ്രകൃതിഭംഗി എന്ന് പറയുന്നത് വളരെയേറെ വ്യത്യസ്തമായ കുറേ സ്വർഗം പോലെ ഉള്ള സ്ഥലങ്ങളായിരുന്നു നമുക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും വകവയ്ക്കാതെ നല്ല രസമുള്ള യാത്രയായിരുന്നു അത് പിന്നെ ഡ്രൈവറും നല്ല രീതിയിലുൽ ഒരു വ്യക്തിയായിരുന്നു പുള്ളി നല്ല കുറേ ഹിന്ദി പാട്ടുകളും കുറേ നേപ്പാളി പാട്ടുകളും ഒക്കെ ഇട്ട് നല്ല വൈബ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു

പിന്നെ പിന്നെ ഞാൻ മൈസൂർ പോയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹംപി പോയിട്ടുണ്ട് ഹംപി എന്ന് പറയുന്ന സ്ഥലം വളരെ ഒരു വ്യത്യസ്തമായൊരു സ്ഥലമാണ് നമുക്ക് കുറേ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ നമ്മൾ ചരിത്രം കുറേ പഠിക്കാനും ഒക്കെ നമുക്ക് ഹംപിയിൽനിന്ന് പറ്റും നമ്മൾ ഒരു ഒരു മണലുപോലുള്ള സ്ഥലവാണെങ്കിലും അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഇനി കുറേ സ്ഥലങ്ങളിലേക്ക് പോവണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ മധ്യ പ്രദേശ് അങ്ങനത്തെ പല സ്ഥലങ്ങളിലേക്ക് പോവണം എന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ട്

എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ തിരക്ക് പിന്നെ വലുതാവുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയമില്ല പിന്നെ ടെക്നോളജി അതൊക്കെ നമ്മളെ രീതിയിൽ നമ്മളെ നല്ല രീതിയിൽ ഇൻട്രോവെർട്ട് നമ്മളെ അന്തർമുഖരാക്കി കളയും നമുക്ക് സ്ഥലങ്ങളിലേക്കൊന്നും പോവാൻ ഇഷ്ടം അല്ലാണ്ടാക്കി കളയും അപ്പോൾ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് നമ്മളെത്തന്നെ മനസ്സിലാകും നമുക്ക് എല്ലാവരെയും മനസിലാക്കാനുള്ള ഒരു കഴിവ് ലഭിക്കും